ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഏറ്റവും വലിയ കാര്യങ്ങളാണ് കാരണം ഒരു പൗരന് ഏറ്റവും വേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ ഏറ്റവും ഒരു വ്യക്തിക്ക് വേണ്ട ഒരു കാര്യം സത്യസന്ധതയാണ് അത് എപ്പോളും ചില സമൂഹത്തോടായാലും ആരോടായാലും നീ നീതികേട് കാണിക്കാൻ പാടില്ല എപ്പോളും സത്യസന്ധത പുലർത്തണം പല മതങ്ങളിലും എല്ലാ മതങ്ങളിലും ഒരു മതം എന്നല്ല എല്ലാ മതങ്ങളിലും ഇഷ്ടം ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആചാരങ്ങൾ അവർ ഭയങ്കര കറക്റ്റ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അവരുടെ അവർക്ക് പല തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതവരുടേതായ അവര രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തമ്മിൽ തല്ലാനൊ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനോ പാടുള്ളതല്ല ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരന് ഏറ്റവും വേണ്ടി നമ്മൾ ഇതാക്കേണ്ടത് സമൂഹത്തിന് വേണ്ടി തന്നെയാണ് സമൂഹത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളാണ് ഒരു പൗരൻ ചെയ്യേണ്ടത്